ഗ്രാമങ്ങളിലിപ്പം വലിയ ആഘോഷങ്ങൾ ഉണ്ടോയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പട്ടണത്തിലുള്ളത് പോലെയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചെറുതായിട്ട് പരിഷ്ക്കരിച്ച് വരുന്നുണ്ട് ഗ്രാമങ്ങളിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴ നമ്മൾ ഇപ്പം ഗ്രാമങ്ങളിൽ നിന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോളൊ ര കല്യാണ വീടുകളിലെല്ലാമാണെങ്കിലും കുറേ പെണ്ണുങ്ങളെല്ലാം വന്ന് നാട്ടി പാട്ട് അങ്ങനെയൊക്കെ പാടീട്ടല്ലാന്ന് നമ്മൾ ആഘോഷിക്കും കല്യാണത്തിൻ്റെ തലേന്നൊ ക്ക നല്ല ആഘോഷിക്കലും ചെയ്യുക പട്ടണങ്ങളിൽ നിന്ന് പറഞ്ഞാലിപ്പം ഗാനമേള അങ്ങനെയെല്ലാം ഉള്ള ആ ഒരു ഇതൊന്നും ഞമ്മടെ ഗ്രാമങ്ങളിലില്ല ഞമ്മടെ ഗ്രാമങ്ങളിൽ ചെറിയ രീതിയിലായിട്ട് അങ്ങനെ പോകുന്നതാന്ന് ഇപ്പോൾ പട്ടണങ്ങളിലുള്ള പോലെ മദ്യപാനമോ ഇല്ലായെന്നല്ല ഞമ്മള ഗ്രാമങ്ങളിലും അത്യാവശ്യം എല്ലാമുണ്ട് പക്ഷേങ്കില് പട്ടണങ്ങളിലിപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ തുടങ്ങുന്നു ഞമ്മള ഗ്രാമങ്ങളിൽ അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല കുറച്ച് പേര് ഉണ്ട് എന്നാലും ചെറിയ രീതിയിലായിട്ട് പോകുന്നു പിന്നെ ഗ്രാമം പട്ടണങ്ങളിൽ ഉള്ള ആഘോഷങ്ങളത്രയൊന്നും നമ്മള ഗ്രാമങ്ങളിലേക്ക് വന്നിട്ടില്ല നമ്മൾ ഗ്രാമങ്ങളിലിപോളുള്ള ആൾക്കാർ പഴയ ഒരു സ്റ്റൈലിൽ തന്നെയാന്ന് ഞമ്മളെല്ലാ കാര്യങ്ങളും കൊണ്ട് പോകുന്നത്